ഇപ്പോൾ അടുക്കളയിലായാലും അല്ലാത്ത മുറികളിലൊക്കെ ആയാലും ഞാൻ ഈ എലി പാറ്റ തുടങ്ങിയവയൊക്കെ വരാതിരിക്കാനൊക്കെ ആയിട്ട് എലികളെ ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ എലിവിഷം വയ്ക്കുക അല്ലെങ്കിൽ എലിപ്പെട്ടി മേടിച്ചിട്ട് അതിൽ എന്തെങ്കിലുമൊക്കെ എലി കഴിക്കുന്ന ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കുടുക്കി വയ്ക്കുവോ അങ്ങനെ എലീനെ പിടിക്കുവൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ തടയാൻ ശ്രമിച്ചാലും എലികളൊക്കെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എവിടുന്ന് ആയാലും വരികയും നമ്മുടെ വീടുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുറേയെണ്ണങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ പാറ്റ ഒക്കെയാണെങ്കിൽ ഇപ്പം നമ്മൾ പാറ്റ ഗുളിക പിന്നെ വേറെ വേറെ ഹിറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പാറ്റകളെ ഒക്കെ ശല്യമൊക്കെ ഒഴിവാക്കുന്നത് ഇങ്ങനെ എന്നാലും ഒരുവിധം എല്ലാ വീടുകളിലും എലി പാറ്റ അങ്ങിനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് ഇതിൻ്റെ ശല്യം എങ്ങനെയെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനൊന്നും പറ്റില്ല എന്നാലും അത് കുറച്ചൊക്കെ തടയാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കാരണം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല കാരണം ഈ സാധനങ്ങളൊക്കെ എതിലേലും പോയിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെച്ചെന്നാലും എലി പാറ്റ പല്ലി അങ്ങനത്തെ പഴുതാര പാറ്റ അങ്ങനത്തെ എല്ലാം സാധനങ്ങളെയും നമുക്ക് കാണാൻ പറ്റും ഇതിനൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒക്കെയാണ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെ ഒക്കെയാണ്